ഹലോ ആ പറഞ്ഞോളൂ ആ അതെ ആ ഇന്നലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ പുറമേ നിന്ന് ഒന്നും ആ ഓക്കേ പുറമേ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല അല്ലെ ആ ഓക്കേ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഉണ്ടായോ ഉണ്ടായിരുന്നു ആ ആ ഈ ഉലുവക്കഞ്ഞി എപ്പോൾ തൊട്ടാണ് കഴിക്കാൻ തുടങ്ങിയത് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം ആ പെട്ടെന്ന് നമ്മൾ ഫുഡ് മാറ്റി കഴിച്ചതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നത് ആയിരിക്കും ആ അപ്പം വയറ്റിൽ നിന്ന് പോക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ആ ഉണ്ട് അല്ലേ ആ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ആണോ ആ ഓക്കേ ആ അത് ഈ ഉലുവക്കഞ്ഞി കഴിച്ചതിൻ്റെ പ്രശ്നം ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യാമെന്ന് അറിയുമോ ഒന്ന് ആ ഒന്ന് എന്ത് ചെയ്യുക ഗ്യാസിൻ്റെ ഗുളിക ഉണ്ടോ ഇല്ല അല്ലെ ആ ഓക്കേ ഓക്കേ ആ ആ ഓക്കേ ആ എന്നാൽ അതൊന്ന് കുടിച്ച് നോക്ക് എന്നിട്ട് കുറവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക മറ്റേ അയമോദക സത്ത് എന്നു പറഞ്ഞ ഒരു സംഭവം ഉണ്ടോ ഇല്ല അല്ലെ വായു ഗുളിക അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ ആ ഓക്കേ അങ്ങനെ ആണെങ്കിൽ നാളെ ഒന്ന് ഇവിടേയ്ക്ക് വരേണ്ടി വരും ആ പിന്നെ വയറ്റിൽ നിന്ന് പോക്ക് ഉണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കണം ആ അപ്പോൾ അത് കുറഞ്ഞോളും അഥവാ കുറവ് ഇല്ലെങ്കിൽ നാളെ ഒന്ന് എന്ത് ചെയ്യുക വരിക എവിടെ ഹോസ്പിറ്റലിലേക്ക് വരിക ആ പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ആ ബുക്ക് ചെയ്തിട്ട് വരണം ബുക്ക് ചെയ്തിട്ട് വരണം ആ പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ കഞ്ഞിയിൽ ഉപ്പിട്ട് നല്ലോണം കഞ്ഞി കുടിക്കുക കേട്ടോ ആ ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കണ്ട ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ വേറെ പല പ്രശ്നങ്ങളിലേക്കും പോവും ഭക്ഷണം നല്ലോണം കഴിക്കുക പിന്നെ നാളെ എന്തായാലും വന്ന് ഒന്ന് കാണിക്ക് ആ ഓക്കേ എന്നാൽ എന്നാൽ നാളെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കേ രാവിലെ പോര് ആ ഓക്കേ എന്നാൽ